ഞാൻ പഠിച്ച വാദ്ധ്യോപകരണം ഹാർമോണിയമാണ്

ചെറിയ രീതിയിൽ സംഗീതം ആലപിക്കും ഞാൻ സ്കൂളിൽ പടിച്ചിരുന്നപ്പോഴാണ് എന്നെ ഹാർമോണിയം പഠിപ്പിക്കുവാൻ എൻ്റെ പിതാവ് അയച്ചത് കൂടുതലും എനിക്ക് മതപരമായ ഗാനങ്ങൾ ആലപിക്കുന്നതിനോടാണ് താൽപ്പര്യം ഏത് പാട്ടും വായിക്കുമെങ്കിലും ദൈവ സ്തുതികൾ ആലപിക്കുന്നതാണ് ഹാർമോണിയത്തിലും എനിക്ക് താൽപ്പര്യം എനിക്ക് ഓർഗൻ കുറച്ചു കൂടി ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഹാർമോണിയത്തേക്കാട്ടിയും കൂടുതൽ സംവിധാനങ്ങൾ ഓർഗനിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് എങ്കിലും ആ ഹാർമോണിയത്തിൽ രണ്ടു കൈകളും ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഗാനമാലപിക്കുമ്പോഴൊരു പ്രത്യേക സുഖമാണ് നമ്മുടെ മനസ്സിനുണ്ടാവുക ഓർഗനിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ് നമുക്കെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ട് ഗാനങ്ങൾ ആലപിക്കാനും ഇടയ്ക്കുള്ള ക്രമീകരണങ്ങൾ വളരെ തീവ്രതയോടുകൂടി നടത്തുവാനും കഴിയും ഹാർമോണിയത്തിൽ പക്ഷേ അങ്ങനെയൊരു കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല താളാത്മകമായിട്ട് ഗാനങ്ങൾ ആലപിക്കുവാനുള്ള ഒരു പരിശീലനം ഹാർമോണിയത്തിൽത്തന്നെ തുടങ്ങുന്നതാണെപ്പോഴും നല്ലത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോഴും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും ഉചിതം എനിക്ക് പാടുവാനും പ്രസംഗിക്കുവാനും വരയ്ക്കുവാനും ചെറിയ രീതിയിൽ കഴിവുണ്ട് കൂടാതെ ഉപന്യാസം കവിത ഇവയെല്ലാം ഞാൻ നേരത്തെ എൻ്റെ വിവാഹത്തിന് മുമ്പ് രചിക്കുമായിരുന്നു ക്രിയാത്മകമായിട്ട് നമ്മുടെ കഴിവുകളെ വിനിയോഗിക്കുവാൻ പെട്ടെന്ന് തന്നെ ഒരു സ്കിറ്റ് തയാറാക്കുവാനൊക്കെ കഴിയുമായിരുന്നു